മലയാള ഭാഷ നമ്മളുപയോഗിക്കുന്നത് കൂടുതലും ഉപയോഗിക്കുന്നത് കേരളത്തിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ഇങ്ങനെ പഠനം കഴിഞ്ഞാൽ ഒരു പ്ലസ് വണ് പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയി പഠിക്കാനും അവിടെ ജോലി ചെയ്യാനും അവിടെ സെറ്റില് ചെയ്യാനും ആഗ്രഹിക്കുന്ന കുട്ടികളാണ് അങ്ങനെയുള്ള കുട്ടികള്ക്ക് മലയാള ഭാഷ പഠിച്ചതുകൊണ്ട് കാര്യമില്ല അവര്ക്ക് നാട്ടിലുള്ള കോണ്വര്സേഷനാണ് മലയാളം ഉള്ളത് അല്ലെങ്കില് ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കില് ഏത് സം രാജ്യത്താണോ അവിടത്തെ ഭാഷയാണ് പ്രധാനമായിട്ടും വേണ്ടത് മാത്രമല്ല ഇപ്പോൾ മലയാള മീഡിയത്തില് കൂടുതലാള്ക്കാരും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് കുട്ടികളെ ചേര്ക്കുന്നത് മലയാളം മീഡിയത്തില് പഠിക്കുന്ന കുട്ടികള്ക്ക് ഒരു പ്ലസ് വണ് പ്ലസ് ടു വരുമ്പോൾ അവിടത്തെ സബ്ജറ്റുകൾ ക്ലിയര് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും കാരണം പെട്ടന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഫുള് ഇംഗ്ലീഷിലെക്ക് പഠിച്ചുതുടങ്ങുമ്പോൾ അവര്ക്കത് വിജയശതമാനം വളരെ കുറവായിരിക്കും ഇതൊക്കെ അറിയാവുന്ന മാതാപിതാക്കൾ സ്റ്റാര്ട്ടിങ്ങിലേ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും ചേര്ക്കുക മാത്രമല്ല ഇപ്പം മലയാളത്തിൽ നമ്മൾ എന്തേലും ഡൌട്ട് എന്തേലൊക്കെ ഉണ്ടെങ്കില് നാം പണ്ടൊക്കെയാണെങ്കില് നമ്മൾ ബുക്കുകൾ നോക്കിയായിരിക്കും സംശയമൊക്കെ തീര്ക്കുന്നത് പണ്ട് കുറെ ബുക്കുകളൊക്കെ തപ്പി വായനശാലകളൊക്കെ പണ്ടുകളുണ്ടാകും അപ്പോൾ അവിടെ പോയി ബുക്കുകളൊക്കെ വാങ്ങിച്ച് നോക്കും പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു സ്മാര്ട്ട് ഫോണ് കൈയിലുണ്ടെങ്കില് അത് ഗൂഗിളിലോ യു ട്യൂബിലോക്കെ നോക്കാണെങ്കില് നമുക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കും അതുകൊണ്ട് ആരും തന്നെ ഇപ്പോൾ എല്ലാവരും പുറത്ത് പോയി താമസിക്കാന് ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് മലയാളം എങ്ങനേലും ഒരു പത്താം ക്ലാസ് വരെ മലയാളം പഠിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് എങ്ങനേലും പഠിച്ചെടുക്കുന്നു എന്നേയുള്ളു അതിനുശേഷം പിന്നെ അവർ ഇംഗ്ലീഷ് തന്നെയായിരിക്കും യുസ് ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും അതിനൊക്കെയുള്ള മെയിന് കാരണം ആരും കേരളത്തില് താമസിക്കുന്ന ആഗ്രഹിക്കുന്നില്ല പുറത്ത് പോയി സെറ്റില് ആവണം നല്ല സാലറി കിട്ടണം ച്ച് കേരളത്തില് പൊതുവേ ജോലികള്ക്ക് സാലറി കുറവായിരിക്കും ഇവിടെ കിട്ടുന്ന ഡബിള് സാലറി പുറത്ത് രാജ്യങ്ങളിൽ കിട്ടുന്നത് കൊണ്ട് എല്ലാവരും തന്നെ പുറത്ത് പോയി ജോലി ചെയ്യാനും അവിടെ സെറ്റിലാവാനും ആഗ്രഹിക്കുന്നു അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഭാഷയെ അല്ലെങ്കിൽ മറ്റ് ഭാഷകളൊക്കെ ഭംഗിയായി കൈകാര്യം ചെയ്യാന് അവർ ശ്രമിക്കുകയും ചെയ്യുന്നു സാധിക്കുകയും അവര്ക്കത് സാധിക്കുകയും ചെയ്യുന്നു